ഇപ്പം മൃഗസംരക്ഷണത്തിൽ നമ്മൾ കൂടുതലായി വളർത്തുന്ന മൃഗങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കൾ വളർത്താറുണ്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഒരു അഞ്ചാറ് പശു ഒക്കെ ഉണ്ട് അപ്പം അതിനെ വളർത്തുമ്പോൾ നമുക്ക് നല്ല അതായത് ഇപ്പോൾ അതിൻ്റെ പാൽ കൊടുത്താലും പിന്നെ അതിൻ്റെ ചാണകം ഇപ്പോൾ വളമായിട്ട് കൊടുത്താലും നമുക്ക് നല്ല വരുമാനം കാര്യങ്ങളും ഒക്കെയുണ്ട് പിന്നെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആട് ആട് കൃഷി നടത്താറുണ്ട് അപ്പം ആട് നമ്മുടെ അടുത്ത് പലതരം ആടുകൾ ഉണ്ട് ചെമ്പരിയാട് പിന്നെ സാധാരണ ജമുനാ പ്യാരി അങ്ങനത്തെ പലതരം ആടുകൾ നമ്മുടെ അടുത്തുണ്ട് ഇപ്പോൾ ഇതിനെയൊക്കെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും ഈ ആട് കൂടുതലായിട്ടും പോകുന്നത് ഇറച്ചി അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് പിന്നെ നമ്മൾ മുട്ടനാട് ആയി അങ്ങനത്തെയൊക്കെ അപ്പം അല്ലാത്ത ആട് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ പാൽ രീതിയിൽ തന്നെ പോകുന്നതാണ് അതായത് ആട്ടും പാൽ ആട്ടുംപാല് ആവശ്യമില്ലാത്ത കുറേ ആവശ്യമുള്ള കുറെ ആൾക്കാരുണ്ട് ആട്ടും പാലിനാണ് കൂടുതലായിട്ടും വില കൂടുതലായിട്ടും കിട്ടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ കോഴികൾ നമ്മൾ കൂടുതലും കോഴികളെ വളർത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രോയിലർ കോഴികളല്ല നാടൻ കോഴികളാണ് കൂടുതലായിട്ടും വളർത്തുക അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുട്ട കൊണ്ടു തന്നെ ജീവിക്കാവുന്നതാണ് അങ്ങനെ പല കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം അതൊക്കെ നല്ല രീതിയിലുള്ള ഒരു മെച്ചപ്പെട്ട രീതിയിലുള്ള ആവശ്യമായിട്ടൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്